സ്കൂളുകളിലെ പ്രോജക്ട് പങ്കെടുത്ത ഒരു അനുഭവം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ആറാം ക്ലാസില് ആറ് മുതൽ ആറാം ക്ലാസ് മുതൽ ഞങ്ങളുടെ സ്കൂളുകളില് എല്ലാവർക്കും പ്രോജക്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചെറിയ ചെറിയ അന്ന് ചെറിയ കുട്ടികള് ചെറിയ സോളാർ വാട്ടർ ഹീറ്റർ പിന്നെ ചെയ്തത് പിരമിഡ് പിന്നെ ഒരു വോൾക്കാനോ എട്ടാം ക്ലാസിൽ ഒക്കെയാണെന്ന് തോന്നുന്നുണ്ട് വോൾക്കാനോ ചെയ്തത് പിന്നെ ഒരു ഡ്രിൽ ആണ് ചെയ്തത് പിന്നെ ചെയ്തത് ഗ്രീൻ ഹൗസ് പ്രോജക്ട് ഗ്രീൻ ഹൗസ് എഫക്ടിന്റെ അതിൻ്റെ മൊത്തം ഒരു പ്രോജക്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പത്താം ക്ലാസിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ചെയ്ത പ്രോജക്ട് എന്ന് പറയുമ്പോൾ ഒരു മംഗൾയാൻ്റെ അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മംഗളയാന്റെ ഒരു ത്രീ ഡയമെൻഷണൽ വർക്ക് ഔട്ടും പ്രൊജക്ടും കൂടിയിട്ടുള്ള അതില് ചെറിയ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ചെറിയ ഒരു ഡെമോ മംഗൾയാൻ്റെ ഒരു ഡെമോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെയ്തത് ആ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ മിസൈലുകളുടെ ഒക്കെ ഒരു ചെറിയ ഡെമോ കാര്യങ്ങളൊക്കെ ചെറിയത് അത്യാവശ്യം ഒരു ഒന്നര അടി ഹൈറ്റുള്ള മോഡൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലെല്ലാത്തിനും ഇപ്പോൾ നല്ല രീതിയ്ക്കുള്ള ഇത് ടീച്ചർമാരുടെ പങ്കാളിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല രീതിയ്ക്ക് ചെയ്യാൻ പറ്റി എല്ലാവരും നല്ല അഭിപ്രായമാണ് അത് പറഞ്ഞത്